അപ്പോൾ കേരളത്തിലെ ഒട്ടനവധി പാചകം രീതികളും ഭക്ഷണങ്ങളും വിഭവങ്ങളും ഒക്കെ വളരെയധികം വ്യത്യസ്തമാണ് നമ്മൾ ഒരു കറി ഉണ്ടാക്കുമ്പോൾ സാധാരണ എന്തൊക്കെ നോക്കും അതിൽ ആവശ്യത്തിലധികം ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ അതിനുള്ള കാണാനുള്ള കളർ അതിൻ്റെ നിറമെങ്ങനെയാണ് അതിലിടുന്ന ചേരുവകളുടെ രുചി അപ്പോൾ കേരളത്തിലും ഇതൊക്കെ തന്നെയാണ് നോക്കുന്നത് പക്ഷേ ഒരു ചെറിയ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ കേരളത്തിലെ ആൾക്കാർ അവരവരുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി പല രീതിയിലാണ് ഒരേ കറി തന്നെ പലരീതിയിൽ ഉണ്ടാക്കുന്നവരാണ് കേരളീയർ അത് ഓരോ നാട് കേരളത്തിലെ തന്നെ ഓരോ നാട്ടിൽനിന്നും മാറിമാറി വരുംതോറും അതിൻ്റെ രുചിയുടെ അളവ് വ്യത്യസ്ത രീതിയിലാകും നമുക്ക് കൊഞ്ച് കറി അല്ലെങ്കിൽ ബോട്ടി അല്ലെങ്കിൽ ചിക്കൻ്റെ മസ്തകം ഐ മീൻ ചിക്കൻ്റെ തലയോട്ടി അങ്ങനെ വളരെയധികം വ്യത്യസ്തവുമായ നല്ല രുചിയുമുള്ള വിഭവങ്ങളൊക്കെയാണ് ഇവിടെയുള്ളത് അതിൽ നമുക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കറിയാണ് നാടൻ ചിക്കൻ കറി തേങ്ങാക്കൊത്തൊക്കെ വെച്ച് തേങ്ങ തേങ്ങാപ്പാലൊക്കെ അരച്ച് അതൊക്കെ ഇട്ടൊരു വെപ്പുണ്ട് അതങ്ങട് നൂലപ്പവും അല്ലെങ്കിൽ പത്തിരിയും കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിലൊരു വയർ നമ്മളോട് നമ്മളോട് തന്നെ പറയും അനിയാ ഒരെണ്ണം കൂടി വായിൽ ഇട്ട് വയറിലിട്ട് തരുമോ അങ്ങനെ വളരെയധികം രുചിയുള്ള കുറേ വിഭവങ്ങൾ കേരളത്തിലുണ്ട്